വയനാട് ജില്ല കൂടുതലൊരു കാർഷിക ആ ജില്ലയാണ് കൃഷി ഉപജീവനമാർഗ്ഗമായിട്ടാണ് കൂടുതലും ആളുകളും വായനാട്ടില് ജീവിക്കുന്നത് പിന്നെ ഒരുപാട് വ്യവസായങ്ങളും വയനാട് ജില്ലയിലുണ്ട് കൂടുതലും കൃഷി ഉൽപ്പാതി കൃഷിയുടെ ഉൽപ്പാദനവും ആയിട്ട് ജീവിക്കുന്നവരാണ് കൂടുതലും വയനാട് ജില്ലയിലുള്ളത് പിന്നെ പിന്നെ ഒരുപാട് ജ്വല്ലറീസ് ജ്വല്ലറീസ് ഫുഡ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനീസും ഒക്കെ വയനാട് ജില്ലയിലുണ്ട് വയനാട് ജില്ലയില് കൂടുതലും കൃഷിയാണ് വയനാട് ജില്ലയിൽ പിന്നെ വ്യവസായവും